ആ പറഞ്ഞോളൂ ആരാണ് അതെ ആ ആ പറഞ്ഞോളു

അല്ല എങ്ങനെ എങ്ങനാണ് നഷ്ടപ്പെട്ട ഐൻറ്റൊന്ന് ഡീറ്റേയ്ൽസ് ഒന്ന് പറയുമോ ബെസ്സിൽ വെച്ച് മൊബൈല് മാത്രമേ നഷ്ടപ്പെട്ടുള്ളോ വേറെ വല്ലോം നഷ്ടപ്പെട്ടായിരുന്നോ ആ ആ നമ്മൾ അത് സൈബർ സെൽലേക്ക് ഫോർവേഡ് ചെയ്ത് കാണുമായിരിക്കും ആ സൈബർ സെൽലേക്ക് ഫോർവേട് ചെയ്യും നമ്മൾ ഇതിപ്പം അല്ല താങ്കളൊരു കാര്യം മനസ്സിലാക്കണം അതായത് ഒരു ദിവസം ഒരു പത്ത് അൻപത് ഫോണുകളാണ് മിസ്സാക്ന്നതീ നാട്ടിൽ ചിലർ അടിച്ചോണ്ട് പോകുന്ന ചിലർ കളഞ്ഞ് പോകുന്നു അങ്ങനെ പിന്നെ അപ്പം നമ്മളെല്ലാം സൈബർ സെല്ലി കൊടുക്കുക അവർക്കും ഒരു പരിധിയില്ലേ അവർ അതിന്റെ സീന്യോരിറ്റി അനുസരിച്ചാണ് അത് അതിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് ചിലപ്പോൾ രണ്ട് ആഴ്ച്ച ആയത്കൊണ്ട് പിന്നെ ഇവിടെന്ന് പിന്നെ ഇവിടെന്ന് അത് അത് ഫോർവേഡ് ചെയ്ത അത് അന്നന്ന് കിട്ടുന്ന ഇതൊക്കെ അന്നന്ന് തന്നെ ഫോർവേർഡെ ചെയ്യാറുണ്ട് ഇവിടെന്ന് നമ്മൾ സൈബർ സെല്ലിലേക്കേ ആ പിന്നെ ബാക്കിയുള്ള അവിടുന്നാണ് കാര്യങ്ങൾ നോക്കേണ്ടത് നമുക്ക് ആ പറഞ്ഞോളൂ താങ്കൾ പറഞ്ഞോളൂ ഞാനിപ്പം ഇച്ചിരി തിരക്കായിരിക്കും ഒരു മീറ്റിങ്ങിന് പോകാൻ പോവാണ് നിങ്ങൾ ഇപ്പം അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഫോണിലൂടെ പറഞ്ഞോ പിന്നെ കുറച്ച് ഒരു അടുത്ത ദിവസമെങ്ങാനും വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കാം കാരണം ഇതിന്റെ ഞാൻ ഒന്ന് ഫോളോ അപ്പ് ചെയ്യണമിതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വിളിച്ച് പറഞ്ഞ ഡീറ്റൈൽസ്സ് ഞാനിപ്പം എഴുതി എടുത്തിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് അല്ല ഫോ ഇത് രണ്ടും രണ്ട് ഡിപ്പാർട്മെൻ്റെലേതാണ് ഇത് ഞങ്ങൾ ഇവിടെ കിട്ടുന്ന പരാതി സൈബർ സെല്ലിലേക്ക് ഫോർവേഡെ ചെയ്യാതെ നമ്മൾ ഇവിടെ വെച്ചല്ലല്ലോ ഇത് നോക്കുന്നത് സൈബർ സെല്ല് വേറൊരു ഡിപ്പാട്മെൻ്റല്ലേ അപ്പം നമ്മൾ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അങ്ങോട്ട് ഫോളോ ഫോളോ അപ്പ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളെ വിളിച്ച് പറയാൻ പറ്റും നമുക്ക് പിന്നെ ഒരു സ്റ്റേഷനെന്ന് പറയുമ്പം ഇത് മാത്രമല്ലല്ലോ വേറെ അടിപിടി കുത്ത് നിങ്ങളാരേ വിളിച്ചാലും നിങ്ങളാരേ വിളിച്ചാലും അതിൻ്റെതായ നടപടിക്രമം അനുസരിച്ച് പോകത്തൊള്ളു കാര്യങ്ങൾ ചിലപ്പം നിങ്ങൾ ആരെങ്കിലും വിളിച്ചാൽ ഞങ്ങൾ കുറച്ച് ചീത്ത കേൾക്കാമെന്നുള്ളത് അല്ലാതെ നിങ്ങളുടെ ഫോൺ കിട്ടണമെങ്കിൽ നമുക്ക് അതിന്റെതായ കാര്യങ്ങളിലൂടെ പോയാൽ മാത്രമാണ് ചിലപ്പോൾ ഞങ്ങളെ മേലുദ്യോഗസ്ഥരെ വിളിച്ചാലപ്പം ചീത്ത പറയായിരിക്കും അപ്പം ആ ആ പ്രഷറ് മൊത്തം അത് അടുത്ത ദിവസം താങ്കൾ വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ആ ദേ ഇത് മൊത്തോം താങ്കൾ നിങ്ങളോട് ആയിരിക്കും തീർക്കുന്നത് അതുകൊണ്ട് ആ ഒരു പ്രയോജനമില്ല നിങ്ങൾക്കും പ്രയോജനമില്ല എനിക്കും പ്രയോജനമില്ല നിങ്ങൾക്ക് ഫോൺ കിട്ടാതാണോ അതോ ഇവിടുത്തെ ഓഫീസർമാരെ